യോഗ ഒരു ചികിത്സാ സമ്പ്രദായം എന്ന നിലയിൽ പലപ്പോഴും ഫലപ്രദമാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യരുടെ എകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് അവരുടെ ശരീരത്തിൽ ഞരമ്പുകളും മസിൽസും ഒക്കെ ഒന്ന് അയഞ്ഞ് ശാന്തമായി ശ്വസിച്ച് ഭൂമിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നതിന് മറ്റുള്ളവരോട് സൗഹൃദങ്ങൾ പുലർത്തുന്നതിന് മനസ്സിൽ ശാന്തത വരുന്നതിന് ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിന് ഒക്കെ ഫലപ്രദമാണ് സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലത്ത് ശാന്തമായ മനസ്സോടെ യോഗ ചെയ്യുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ ദേഷ്യത്തോടെ കാണുന്നതിനോ മറ്റുള്ളവരോട് ശത്രുത വച്ച് പുലർത്തുന്നതിനോ സാധിക്കുകയില്ല യോഗ നമ്മുടെയും പല രാജ്യങ്ങളിലും ഏറെ പ്രശംസ നേടിക്കൊടുത്ത ഒരു ചികിത്സാ സമ്പ്രദായം മാത്രമല്ല ഒരു എക്സസൈസ് കൂടിയാണ് അതിനാൽ എറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സമ്പ്രദായമാണ് പക്ഷെ പലപ്പോഴും ഇതിനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അച്ചുകൂട്ടിൽ അല്ലെങ്കിൽ ചട്ടക്കൂട്ടിൽ കൊണ്ടുപോയി നിർത്തുമ്പോഴാണ് മതപരമായ ചിന്തകളും മതപരമായ ആചാരങ്ങളും അതിനോട് കൂട്ടി ഇണക്കുമ്പോഴാണ് പഴപ്പോഴും എല്ലാവരും ഇരു കൈകളും നീട്ടി യോഗ സ്വീകരിക്കാതെ പോകുന്നത് അവയെ മാറ്റിയിട്ട് മതപരമായ ചിന്തകൾക്ക് അപ്പുറമായിട്ട് മാനവികതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി യോഗയെ പ്രോത്സാഹിപ്പിക്കുകയാണ് എങ്കിൽ ഏറെ ഉപകാരപ്രദമായിരിക്കും പലപ്പോഴും മതപരമായ ചിന്തകളും മതപരമായ അനുഷ്ഠാനങ്ങളും അവയിൽനിന്ന് മാറ്റുകയാണെങ്കിൽ അതിൽ പല പല പദപ്രയോഗങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേകിച്ച് ഹൈന്ദവ മതത്തിൻ്റെ ആചാരങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ് പക്ഷെ നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തുന്ന

പല മതങ്ങളും വിശ്വസിക്കുന്ന പല മതങ്ങളും ഇൽ വിശ്വസിക്കുന്ന ആൾക്കാർ നിവസിക്കുന്ന ഭാരതത്തിൽ ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം നമ്മൾ കൊണ്ടുവരുമ്പോഴ് അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആ ചട്ടക്കൂട്ടിൽ നിർത്താതെ കണ്ട് അതിന് ആദ്യമേ സൂചിപ്പിച്ചത് പോലൊരു മാനവികത കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ സ്കൂള്കളിലൊക്കെ പ്രത്യേകിച്ച് ഒന്നാം ക്ലാസൊക്ക മുതൽ നമ്മൾ ഈ സ്കൂള്കളിൽ ഡ്രില്ല് അല്ലെങ്കിൽ അതുപോലെ കുട്ടികൾക്ക് ഉല്ലസിക്കാനുള്ള സമയങ്ങൾ ഒക്കെ കൊടുക്കുന്നത് പോലെത്തന്നെ യോഗക്ക് ഒരു സമയം ആ ഒരു ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ മാസത്തിലൊന്നോ ഒരു മണിക്കൂറ് വീതം കൊടുക്കുകയും കുട്ടികൾ അതുമായിട്ട് ഇണങ്ങി നല്ല യോഗയൊക്കെ ചെയ്ത് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ മാറ്റി ശാന്തമായ മനസ്സോടെ പഠിക്കാനും അധ്യാപകരോടും മാതാപിതാക്കളോടും മുതിർന്നവരോടും ബഹുമാനവും ആദരവുമുള്ള കുട്ടികളായിട്ട് സമൂഹത്തിന് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള കുട്ടികളായിട്ട് വളർന്ന് വരുന്നതിന് സഹായകമായിരുന്നു അങ്ങനെയുള്ള ചിന്തകളിലേക്ക് വരുന്ന ആളുകളിൽ നമ്മുടെ സർക്കാർ അതുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നീങ്ങും വേണമെന്ന് ഞാൻ കരുതുകയാണ് പല രോഗങ്ങളും ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് മനുഷ്യൻ്റെ തന്നെ തന്നെ മനസ്സിൽ അടിഞ്ഞ് കൂടിയിട്ടുള്ള ദേഷ്യത്തിൻ്റെയും അവനിൽ തന്നെ അടിഞ്ഞ് കൂടിയിട്ടുള്ള പാപകരമായ ചിന്തകളുടെയും തൽഫലമായിട്ട് അവനിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഹോർമോണ്കളുടെ പ്രതി പ്രവർത്തനമായിട്ട് വരുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ശാന്തമായിട്ടുള്ള മനസ്സോടെ ശാന്തമായി നമ്മുടെ ശരീരത്തെ ഈ യോഗയ്ക്ക് വിട്ട് കൊടുക്കുകയും നന്നായിട്ട് യോഗ അഭ്യസിക്കയും ചെയ്യുകയാണെങ്കിൽ പല രോഗങ്ങളും ഇന്ന് നമുക്ക് തന്നെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും ഭാരിച്ച ഒരു ചികിത്സാ ചെലവുകൾ മൂലം കഷ്ടപ്പെടുന്ന അനേകം ആയിരങ്ങൾക്ക് ഇത്തരം ഒരു സമ്പ്രദായത്തിലൂടെ രോഗവിമുക്തി നേടാനായിട്ട് സാധിക്കും എന്ന് ഞാൻ കരുതുകയാണ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നമ്മുടെ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ അവസരത്തിൽ ഈ കേരളാ ഗവൺമെൻറ്റിനോടും സെൻട്രൽ ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സ്കൂള്കളിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലും യോഗ പരിശീലിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിന് പരിശീലനം ലഭിച്ച അധ്യാപകരെ നിയമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഓക്കെ താങ്ക് യൂ